ഹലോ ആ ഇത് ഡോക്ടർ അല്ലേ അഞ്ജലി ഡോക്ടർ അല്ലേ

ഡോക്ടറെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം ആയി കൊണ്ട് ഒര് മുട്ടുവേദന ആണ് കുറച്ച് നടക്കാൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ അപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസം ആയിട്ട് എനിക്ക് ഇങ്ങനെ കാല് കഴപ്പും നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ എനിക്ക് നേഴ്സറി വീട് പരിപാലനം പിന്നെ സ്റ്റിച്ചിംഗ് ഇതൊക്കെ ആണ് ആ മെഷീൻ ചവിട്ടും ആ

ആ ആ ആ ആ ക്ലിനിക്ക് ആ ആ ആ ആ ആ നാളെ എത്ര മണിക്ക് വരണം

ആ ആ ആ ആ ആ ആ ആ

ആ ആ ഈ ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതിയല്ലോ ആ ആ ആ വേറെ ഈ ഇടയ്ക്ക് എന്തോ വീണിട്ടുണ്ട് ഇത് വീണതിൻ്റെ അല്ല അല്ലാതെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ആ ഇപ്പോൾ കുറച്ച് ഇടയ്ക്ക് കുറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ഇങ്ങനെ ജോലികൾ കൂടുതൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അത് വരുന്നത് അമ്പത്തെട്ട് ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ശരി ആ വിളിച്ചിട്ട് വരാം ആ